നമ്മുടെ സമൂഹത്തില് പാരമ്പര്യരീതിയിൽ നടത്തി കൊണ്ട് വരുന്ന കൃഷിയാണ് നെല്കൃഷി നെല്കൃഷി പണ്ടുമുതലേ നമ്മളെ ചുറ്റുപാടും കണ്ടാലറിയും ചുറ്റുപാടും നെല്കൃഷി നെല്പ്പാടം തന്നെയാണ് ഏകദേശം ഒന്നോ രണ്ടോ ഏക്കർ സ്ഥലത്ത് മുഴുവനും നെല്ലും നെൽകൃഷിയാണ് ചെയ്യുന്നത് അപ്പോ ഒരുപാട് പേർ പാടത്ത് ഒരുപാട് പേർക്ക് പാടത്ത് ജോലി കിട്ടും നട്ടി നടുന്ന സമയത്താണെങ്കിലും ഒരുപാട് സ്ത്രീകൾ സ്ത്രീകളും പുരുഷന്മാരും ന നട നടാൻ പോവും നട്ടിട്ട് ഡെയിലി വെള്ളമൊഴിക്കും വെള്ളമൊഴിച്ചിട്ട് അത് നെല്ലുണ്ടായി നെല്ലുണ്ടായി നെല്ല് കൊയ്യുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഒരേപോ ഒരുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് പാടത്തേക്ക് ഇറങ്ങിയാലും അവിടുത്തെ നടീല് നട്ട് എല്ലാം മുറിച്ചിട്ട് മുറിച്ചിട്ട് ഓരോ കെട്ടുണ്ടാക്കിയിട്ടാണ് വീട്ടിലെത്തി കെട്ടുണ്ടാക്കിയിട്ട് വീട്ടിലെത്തിക്കും അവിടെനിന്ന് അവിടം തൊട്ട് ആ ഓരോ ആ നെല്ലിന്റെ കെട്ടും ഉണക്കിയെടുക്കും ഉണക്കി എടുത്തിട്ട് കുറേ ദിവസത്തെ പണിയാണ് ഒന്നോ രണ്ടോ ദിവസത്തിൽ തീരുന്ന ഒരു പണിയല്ല ഇത് കുറേ കെട്ടുണ്ട് ആ കെട്ട് മുഴുവനും ഉണക്കിയെടുക്കണം അപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് പാടത്തിറങ്ങി ഈ കെട്ടും എടുത്തിട്ട് വീട്ടിലേക്ക് വരും വീട്ടിൽ വന്നിട്ട് എല്ലാം ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തിട്ട് ഓരോ നെല്ലും പാരമ്പര്യ രീതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അതിനെ ചവിട്ടിയിട്ട് സെപ്പറേറ്റ് ആക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് അതിനെ കുത്തിയെടുക്കുന്ന രീതിയാണ് പാരമ്പര്യമായിട്ട് നെല്കൃഷിയിൽ ചെയ്യുന്നത് ഇന്നാണ് അതാണെങ്കിൽ കുറേ ദിവസം കുത്തിയെടുത്തിട്ട് അതിനെ വീണ്ടും ഉണക്കിയിട്ട് അതിന്റെ ഉമി കളഞ്ഞിട്ടാണ് അരിയുണ്ടാക്കുന്നത് ഇന്ന് അതിന് കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് മിഷ്യനിലാണ് മിഷ്യൻ കൊണ്ട് മിഷ്യൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ നെല്ല് നട്ട് മുറിക്കാന് ഇന്നും ഇവിടെ എല്ലാം സ്ത്രീകള് തന്നെ പാടത്തേക്കിറങ്ങും സ്ത്രീകൾ ഇറങ്ങിയിട്ട് നട്ടി മുറിച്ചിട്ട് കൊണ്ട് കൊണ്ട് വന്നിട്ട് പണ്ടത്തെ പോലെ ഉണക്കിയെടുത്തിട്ട് ചവിട്ടി ചവിട്ടി ഇത് കളയേണ്ട ആവശ്യമില്ല അതിനു പകരം ഇന്ന് അത് മെഷിൻലിട്ടിട്ട് മെഷിൻലിട്ടിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ടാണ് അരി ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ പണ്ടത്തെ അതേ രീതിയിലാണ് ഇപ്പോളും ഇവിടെ നടക്കുന്നത് അത് ആ ഒരു പാടത്ത് നെല്ല് കൊയ്യുന്ന സമയത്ത് പോയി നിന്നാൽ അറിയാം പാട്ടും പാടി കൊണ്ട് പാട്ടും പാടി കൊണ്ട് അത് ആ കൊയ്യുന്ന ഒരു രീതി അത് കണ്ടാസ്വദിക്കുക തന്നെ വേണം സിറ്റിയില് ഒന്നും പോയാൽ അത് കാണാന് പറ്റില്ല നമ്മളെ ഉൾ നാടന് പ്രദേശത്ത് ഇത് ശരിക്കും നമുക്ക് ഒരു ഉത്സവം പോലെ ആഘോഷിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ആള്ക്കാർ ഇപ്പം ഇങ്ങനെ കൂടി നിൽക്കും ആ ഒരു നെല്ല് കൊയ്യുന്ന സമയത്ത് അവരെ പാട്ടും കേട്ടിട്ട് അവർ ആ കൊയ്യുന്ന സമയത്ത് പാട്ടും പാടി അത് കൊയ്ത് അട്ടിയട്ടി ഉണ്ടാക്കി തലയിൽ കെട്ടിവെച്ച് കൊണ്ട് പോകുന്ന ആ ഒരു രീതി കണ്ടിട്ട് ആള്ക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും അതൊക്കെ കാണേണ്ടത് തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് മിഷ്യനില് ഇട്ടിട്ടാണ് ഇന്ന് അരി ആക്കി എടുക്കുന്നത് കൂടാതെ വാഴകൃഷി ചേന അടയ്ക്ക അതൊക്കെ പാരമ്പര്യമായി ചെയ്തു കൊണ്ട് വരുന്ന അതേ രീതിയില് തന്നെ ഇപ്പോളും ചെയ്യുന്നുണ്ട് ഒരുപാട് അടയ്ക്കയാണെങ്കിലും ആ തോട്ടത്തിൽ ഓരോ ഇങ്ങനെ ഒരു ഇത്ര സ്ക്വയര് ഫീറ്റീനും ഒരു അടയ്ക്ക തൈ നട്ടിട്ട് അതിന്റെ ചുറ്റും ആ സ്പ്രിങ്ക്ളർ വെച്ചിട്ട് വെള്ളം അടിക്കുന്നതും ആ അടയ്ക്കയിൽ ഉണ്ടാകുന്ന പൂക്കുലയും അത് ഓരോ നല്ല നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും അതുപോലെ അടയ്ക്ക കുലയും ആ കുലയും അതില് നിന്ന് ഇങ്ങനെ പണ്ടാണെങ്കിൽ ഇങ്ങനെ ഉലിച്ചെടുക്കും അതിന്റെ അടയ്ക്ക ഇപ്പോൾ അതിനുവേണ്ട സൗകര്യം ഒക്കെ അടയ്ക്ക ഉണക്കി വെച്ചാൽ അത് മിഷ്യനിൽ ക അതിന്റെ തൊലി കളഞ്ഞെടുക്കും അങ്ങനെ ചെയ്യും അത് പോലെ ചേന ചേനകൃഷി വാഴകൃഷി ഇതൊക്കെ പണ്ട് ചെയ്യുന്ന അതേ രീതിയില് ഇപ്പോളും ചെയ്യുന്നുണ്ട് വാഴകൃഷി ആണെങ്കിലും ചില കാറ്റും മഴയൊക്കെ വരുമ്പോൾ നാശങ്ങൾ സംഭവികുന്നത് അല്ലാണ്ട് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റുകള് കിട്ടാറുണ്ട് ഇതിൽനിന്നൊക്കെ ചേനായാണെങ്കിലും ഓരോ ചേനക്ക് ചേനക്കുഴി കുഴിയിൽ കിട്ടുന്നത് ചേനക്കുഴിയിൽ വലിയ വലിയ ഒരു ഒരു പത്ത് കിലോ അഞ്ചു കിലോ ആ വലുപ്പത്തിലാണ് ചേനകള് ലഭിക്കാറ് അത്രയും നല്ല കൃഷിയെടുപ്പാണ് ആ പാരമ്പര്യ രീതിയിൽ ഇപ്പോളും ചെയ്തു കൊണ്ട് വരുന്നത് അതേപോലെ നല്ല നല്ല നല്ല നല്ല വിളവെടുപ്പാണ് കിട്ടുന്നത് അതില് നിന്ന് ഒരുപാട് ഒരുപാട് സം പണവും അതിനെ വിറ്റ് ഒരുപാട് പണവും ഉണ്ടാക്കാറുണ്ട് ആ പാരമ്പര്യ രീതി രീതി തന്നെയാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം